ഇവിടെ ഇപ്പം എത്ര സ്വകാര്യ ആശുപ്രത്രികളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മൂന്നെണ്ണം ഉണ്ട് നിലവിൽ അപ്പോൾ മൂന്നെണ്ണത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു മണിക്കൂറോളം വേണം പിന്നെ റോഡും കാര്യങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു തകരാറിൽ കിടക്കുന്ന റോഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു മണിക്കൂറിൽ എത്തേണ്ടത് ആണെങ്കിൽ നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും ടൈം നമ്മുടെ ടൈം വേസ്റ്റ് ആകുന്നുണ്ട് അവിടെ രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് നമുക്ക് ആ ഒരു ആശുപത്രയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വണ്ടി ഇപ്പം വണ്ടിക്കാർ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എത്ര ചിലവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലവിൻ്റെ കാര്യത്തിൽ എത്തിപ്പെടാനും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഇപ്പം ചിലവിൻ്റെ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അവിടെ എത്താൻ ഒരു നൂറ് രൂപ മിനിമം ചാർജ് എങ്കിൽ അവർ നമ്മുടേന്ന് നൂറ്റൻപത് രൂപ ഇരുനൂറ് രൂപ വരെ മേടിക്കാൻ മേടിക്കുന്നുണ്ട് കാരണം അവർക്ക് ഇത് ചിലവാകണ്ടേ അവരുടെ വണ്ടീമേ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തകരാറ് പറ്റുക കാരണം അതുപോലത്തെ റോഡാണ് ഇതിലൂടെ പൊട്ടി പൊളിഞ്ഞ റോഡും അതുപോലെ തന്നെ ഗട്ടർ കാര്യങ്ങളൊക്കെ ഫുള്ള് സീനാണ് അപ്പം ഇതിലൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അവർ മിനിമം ചാർജ് നോക്കാതെ അവർ തന്നെ ഒരു പൈസ പറഞ്ഞ് നമ്മൾ അത് കൊടുക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവിടേക്ക് എത്താൻ നമുക്ക് ഇപ്പം സീരിയസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ എങ്കിലും ഇല്ലാതെ അവിടെ നിന്ന് ഒരു വണ്ടി നമ്മൾ വിളിക്കുകയാണെങ്കിൽ തന്നെ ആ വണ്ടി ഇവിടെ എത്തി ഇവിടെ നിന്ന് തിരിച്ച് അവിടെ കൊണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾക്കും ചിലപ്പം ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വരില്ല കാരണം അത്ര സീരിയസ് ആയിട്ട് ഒരാളെ കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ സീനായത് കൊണ്ടാണ് അപ്പം ഒരാൾ എങ്ങനെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും മരിച്ച് പോകാം കാരണം ഇവിടെ ഉള്ളവർക്ക് ഒന്നും ഇപ്പം അവരുടെ ആരോഗ്യത്തെ കുറിച്ച് ആലോചിക്കാനേ സുഖമില്ലാ അപ്പോൾ ആരോഗ്യം അവർക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് അറിയാം കാരണം അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പെട്ടെന്ന് ഒരു ഗർഭ ഒരു പ്രെഗ്നൻസി കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒന്ന് ആശ്രയിക്കാൻ ആരുമില്ല എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിഞ്ഞു കൂടാ